ഹലോ ഹലോ മ് ആ ഹലോ കേൾക്കുന്നു ആ എന്തോ അ ഞാൻ ആ ഞങ്ങളുടെ നാട് എന്ന് വെച്ചാൽ കേര വൃക്ഷം എന്നാണ് നമ്മുടെ ഈ നാട് ഈ പ്രദേശത്ത് പറഞ്ഞത് കേരവൃക്ഷം കേരളത്തിലെ വൃക്ഷമാണ് തെങ്ങ് എന്ന് പറയുന്നത് ആ തെങ്ങ് എന്ന് പറയുന്നത് തെങ്ങിലെ വിളഞ്ഞ തേങ്ങ മൂത്ത അത് കിളിത്ത് വന്ന് അത് പിന്നെ കുഴിച്ചിടുക അതിങ്ങനെ ഇല പൊട്ടി മുളക്കുവല്ലോ മൂത്ത വിളഞ്ഞ തേങ്ങ അത് കിടന്ന് ആ പൊങ്ങി

ആ കരിക്കിൽ നിന്ന് തന്നെ കരിക്ക് ആദ്യം വെള്ളയ്ക്ക മച്ചിങ്ങ ആദ്യം ആ വെട്ടിയിടും തേങ്ങ എന്നിട്ട് അത് ചിലപ്പം നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് തേങ്ങ അരയ്ക്കും ഒക്കെ ചെയ്യും അ പിന്നെ അതിന്റ ഒ അ ആ ഓല അത് എടുത്ത് കേൾക്ക് അത് വെച്ച് ചൂല് ഈര്ക്കിളിലേൽ ഓല കളഞ്ഞിട്ട് ഞങ്ങളത് ചൂലാക്കും പിന്നെ അത് കൂടാണ്ട് വേറെ ഇപ്പഴ് ആരും അങ്ങനെ ചെയ്യുന്നില്ല അതിൻ്റെ കേൾക്ക് ഓലയില്ലേ ഓല മെടഞ്ഞ് പണ്ട് പണ്ട് കാലത്ത് എ ഈ ഓല മെടഞ്ഞിട്ട് ആ ഓല കൊണ്ടാണ് പുര മെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് അത് ഓടൊക്കെ ആയത് ആ അപ്പം അത്കൊണ്ട് ചൂല് കീറി എടുക്കും പിന്നെ ഓല മെടഞ്ഞ് ഇത് ചെയ്യും ഇപ്പം ചെയ്യുന്നില്ല ആരും ആ ആ അത് ആ ഉണ്ട് ലേഹ്യമുണ്ടാക്കും ആ ആ അതെ അതെ അതെ അതെ ആ അങ്ങനെയൊക്കെ അത് ചെയ്യും പ്രസവരഷയ്ക്ക് പിന്നെ പൂക്കുല രസായനം ലേഹ്യമുണ്ടാക്കും ആ അങ്ങനെ കൊടുക്കും പിന്നെ പിന്നെ കരിക്ക് ആ ഉണ്ട് അതിനാണ് തെ ആ അതെ അതെ ഹ് ആ ഉണ്ട് തരുന്നുണ്ട് ആ ആ ആണ് അതെ ആ അന്നി ആ ആ കേരളം എന്ന് വെച്ചാൽ കേരവൃക്ഷം എന്നാണ് അതിനെ പറയുന്നത് ആ പിന്നെ അതിന് തെങ്ങിന് വളമാണ് ആ ഇഷ്ടപ്പെട്ടോ ആ ആ ആ ആ ആ അതെ മായം ചേര്ക്കാത്ത വെള്ളമാണ് ആ അതെ അതെ അതെ പിന്നെ ആ അതെ അതെ അതെ ആ തരുന്നതാണ് ആ ആ ആണ് ആ കരിക്കുംകൊണ്ട് പല പല സാധനങ്ങളക്കെ ഉണ്ടാക്കും നമ്മൾ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല ആ ആ

ഉണ്ടാക്കുന്നുണ്ട് ആണല്ലേ അതിനെ ആ തെങ്ങിന് നല്ല വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഉണക്ക ചാണാൻ പിന്നെ നനച്ചൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് വളമായി ഇഷ്ടംപോലെ തേങ്ങയും ഒക്കെ കിട്ടും ആ അങ്ങനെ അതൊരു നല്ല വൃക്ഷമാണ് അതുകൊണ്ട് നല്ല ഇതാണ് ആ കല്പവൃക്ഷം ഉം അപ്പം മതിയായോ എന്നല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ

ആ അതെ ആ ആ ആ ആ എന്നാൽ അപ്പം ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ശരി ഓക്കെ ഇനി കാണാം